മത്സ്യം പിടിക്കാൻ പോകുമ്പം രാവിലെ ഒരു ചൂണ്ടലുമായിട്ട് അതിന്റെ ഒരു നംഗീസിന്റെ നൂല് പ്ലാസ്റ്റിക്കിൻ്റെ നൂലാണ് അതില് കുറേ മണ്ണിരേനേയും പിടിച്ച് അത് കോർത്ത് ഇട്ട് പിന്നെ അതും കൊണ്ടുപോയി രാവിലെ പുഴവക്കത്തോ തോടിന്റെടുത്തോ എവിടെയെങ്കിലും പോയിരുന്നാല് രാവിലെ പോയാല് വരുന്നത് ചിലപ്പം വൈകുന്നേരല്ലം ആവും മീനിനെ കിട്ടിയാൽ കിട്ടി എന്തെങ്കിലും ചെറിയ പരലിനേയോ മറ്റോ കിട്ടും അതുംകൊണ്ട് ചിലപ്പം വരും ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല ഇപ്പം എന്ന് പറഞ്ഞാല് മത്സ്യം പിടിക്കാൻ പോകുന്നോല് തോണിയിലും എല്ലാം പോയി വലയിട്ട് പിടിച്ച് ഇഷ്ടം പോലെ മീന് ചില സമയത്ത് കിട്ടും പിന്നെ കടലിലെല്ലാം പോകുന്നവർക്ക് ഇഷ്ടം പോലെ മീന് മീനിനെ കിട്ടും ഈ പുഴവക്കത്തെല്ലാം പോയിരുന്നാൽ കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ പിന്നെ ആചാരങ്ങള് അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല പിന്നെ ഇത് ഇങ്ങനെ മീന് പിടിക്കാൻ പോയ ഇങ്ങനെയാണ് കിട്ടിയത് കിട്ടിയാൽ അത്രയേ ഉള്ളൂ ചില സമയം വരുമ്പം മീനും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരു വെറും ചുണ്ടലും ആയിട്ട് വരാം അത്രയേ ഉള്ളൂ